ഹലോ ക്യാബ് സർവീസ് തന്നെ അല്ലേ ഇത് എത്ര നേരം ആയെന്നറിയുമോ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് ഏഴ് മണിക്ക് ബുക്ക് ചെയ്തതാണ് ഇപ്പോൾ ഏഴ് മുപ്പത്തിമൂന്നായി മുപ്പപത്തിമൂന്ന് മിനിറ്റ് ഞങ്ങൾ നിങ്ങൾക്കുവേണ്ടി വെയിറ്റ് ചെയ്തു എന്താണിത് മനുഷ്യൻ്റെ സമയത്തിന് വില ഇല്ലേ ഞങ്ങൾ തരുന്ന കാശിന് നിങ്ങൾ അങ്ങനെ കുറച്ച് വാങ്ങാറില്ലല്ലോ ഏ മീറ്ററിൽ കാണിക്കുന്ന കാശ് മൊത്തം നിങ്ങൾ വാങ്ങുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്ത് ഞങ്ങൾ ബുക്ക് ചെയ്ത സമയത്തിന് നിങ്ങൾ ഇവിടെ എത്തേണ്ടത് നിങ്ങളുടെ ഡ്യൂട്ടി അല്ലേ ഇത് വളരെ മോശമാണ് മോശം ആയിട്ടുള്ളൊരു കാര്യമാണ് ബാക്കി ഉള്ളവരുടെ സമയത്തിന് വില കൽപ്പിക്കാതെ നിങ്ങളെ പ്രതീക്ഷിച്ച് നിന്ന നോർമൽ ആയിട്ട് പോകുന്ന ടാക്സി എല്ലാം കളഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് എന്നിട്ട് നിങ്ങൾ ബുക്ക് ചെയ്ത് നിങ്ങൾ വരും വരുമെന്ന് കാത്തിരുന്ന് ഇപ്പോൾ മുപ്പത്തിമൂന്ന് മിനുട്ട് ഒക്കെ കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഞങ്ങൾ ഒരു കാര്യം പ്ലാൻ ചെയ്ത് ആ പ്ലാനിങ്ങ് മൊത്തത്തിൽ മാറുന്നതിന് കാരണം നിങ്ങൾ അല്ലേ ഇത് റിവ്യൂ ചെയ്യുമ്പോൾ വളരെ മോശം റിവ്യൂ ആയിരിക്കും നോക്കിക്കോ ഇങ്ങനെയുള്ള ഇതൊന്നും ചെയ്യരുത് വളരെ തെറ്റാണ് ഇതൊക്കെ